എൻ്റെ കാലിന് നല്ല വേദന ഉണ്ട് ഡോക്ടർ വണ്ടിയിൽ നിന്ന് വീണതായിരുന്നു ഇടത്ത് കാലിന് ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു എനിക്ക് സി ടി സ്കാൻ എടുത്തിരുന്നു ഇതാ അതിൻ്റെ റിപ്പോട്ട് ഇതാ ഡോക്ടർ റിപ്പോട്ട് രണ്ട് ദിവസം ആയിട്ടെ ഉള്ളൂ ചെറിയ ഓപ്പറേഷനാണോ നല്ല പൈസ വേണ്ട വരുമോ ഓപ്പറേഷന് ആണോ ഡോക്ടർ അന്നേരം ഓപ്പറേഷന് നമ്മളുടെ കൂടെ ആരെങ്കിലും വേണ്ട വരില്ലേ ആ ഉണ്ട് എപ്പോഴാണു വരണ്ടത് നമ്മൾ ആ ശരി ഡോക്ടർ ഇന്ന് തന്നെ വരാം നല്ല ചെലവ് ഉണ്ടോ ആ ഡോക്ടർ വേഗം തന്നെ ഓപ്പറേഷൻ ചെയ്തോ നല്ല വേദന ആ പറയാം ഡോക്ടർ ഇന്ന് തന്നെ അടക്കാം ആണോ ആ ഇപ്പോൾ തന്നെ അടക്കും ആ അടച്ചിട്ട് കടലാസും കൊണ്ട് വരാം